പാത്രത്തില് കരിപിടിച്ചുകഴിഞ്ഞാല് ഞാന് ചെറുപ്പത്തില് ഉമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കാരണം അമ്മളാ കരിപിടിച്ച സമയത്തത് ഉരച്ച് കളയുന്നതിനേക്കാള് നല്ലതത് കുറച്ചുനേരം രണ്ട് ദിവസമല്ലെങ്കില് ഒരു ദിവസമോ വെള്ളം ഒഴിച്ചുവച്ചിട്ട് നമ്മളത് അതൊന്ന് പൊതിരാന് സമയമെടുത്തിട്ട് പിന്നെ അത് ഒന്ന് ചെറിയൊര് സ്പൂണ് കൊണ്ടൊക്കെ അത് ചുരണ്ടി കളഞ്ഞിട്ട് പിന്നെ അമ്മളെ കമ്പിച്ചണ്ടിയോ വെണ്ണൂറോ അല്ലെങ്കില് അമ്മളെ വിമ്മോ എക്സോ ഒക്കെ ഇട്ടിട്ട് അതൊന്ന് നല്ലവണ്ണം നല്ലവണ്ണം ഒരതിക്കളയാണ് ചെയ്യാറ് പിന്നെ പല രൂപത്തിലിപ്പോള് വെണ്ണൂറിട്ടിട്ടായാലും പിന്നത്പോലെതന്നെ നാരങ്ങ പിഴിഞ്ഞിട്ടായാലും അല്ലെങ്കില് വേറെയെന്തെങ്കിലും നമ്മളാ ഒര് എന്താ പറയുക അങ്ങനെ ആ രൂപത്തിലൊക്കെ നമുക്ക് അത് കരിപിടിച്ച പാത്രങ്ങള് നമുക്ക് പല രൂപത്തിലിപ്പോള് പലേ ഫുഡായിരിക്കും പിടിക്കുക അപ്പാപ്പാ പിടിക്കുന്ന ആ ഒരു കട്ടിക്കനുസരിച്ചോ അല്ലെങ്കില് എങ്ങനെയാണ് കരി പാത്രത്തില് പിടിക്കണോയിച്ചാല് സാധനം ചെറുതായിരിക്കും ചിലെ എന്താണ് ചിലപ്പോള് പഞ്ചസാരയും ചായപ്പൊടി വെച്ചാല്ത്തന്നെ അമ്മളത് അത് വറ്റിയിട്ട് കട്ടി പിടിക്കും പിന്നെ അതുപോലെതന്നെ വേറെന്തേലും ചിലപ്പോള് നമ്മള് ഫുഡൈറ്റംസൊക്കെയാണെന്നുണ്ടേല് ചോറാണെങ്കിലും അത്യാവശ്യം നല്ല കട്ടിയിലിരിക്കും അപ്പോള് ആ കട്ടിക്കനുസരിച്ചും ഒക്കെയാണ് അമ്മളതിന്റെ അത് ആ പാത്രത്തിലെങ്ങനെയാണോ അത് പിടിച്ചിരിക്കുന്നത് അതേപോലെയാണ് അമ്മളത് ന് നോക്കാം പിന്നെ ഒരതാന് നോക്കുക അപ്പോഴത് അമ്മള് ഉസ്പൂണ് കൊണ്ടൊക്കെ ആദ്യമൊന്ന് ചൊരണ്ടിക്കളഞ്ഞിട്ട് പിന്നത് അല്ലെങ്കില് വെള്ളത്തിലാദ്യം തൊട്ടുവെച്ചിട്ട് അത് പുതിര്ന്നിട്ട് പിന്നെ സ്പൂണും കൊണ്ടോ അല്ലെങ്കില് വേറെന്തെങ്കിലും ഒര് ഒരിത്കൊണ്ട് ചൊരണ്ടിക്കളഞ്ഞിട്ട് പിന്നെ നമ്മള് അത് പിന്നേ പാത്രം ഒരു ഇനി അമ്മളെ ഒരു ചെറിയൊരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കില് നമ്മളുടെയാ ഒരു കമ്പിശണ്ടി വെച്ചിട്ടോക്കെ നല്ലവണ്ണം ഒരതിക്കളഞ്ഞിട്ട് പിന്നെ വെണ്ണൂറ് വെച്ചിട്ടൊക്കെ പിന്നെ കഴുകുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണ് ചെയ്യാന് ഓക്കെ